സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ കേന്ദ്ര ഗവൺമെൻറിൻ്റെ ആയുഷ്മാൻ ഭവ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇൻഷുറൻസ് അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതുവരെ നമുക്ക് അതിന് സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അത് ഉപയോഗിക്കേണ്ടി വന്നില്ല ഇതുവരെ നമ്മളത് ഉപയോഗിക്കേണ്ടി വന്നില്ല ആ കാർഡ് അല്ലാതെ കേരള ഗവൺമെൻറിൻ്റെ ഇൻഷുറൻസ് കാർഡ് ഞങ്ങൾക്ക് ഞാൻ എടുത്തിട്ടില്ല എന്നാലും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ അത് നമുക്ക് സാമ്പത്തികമായി പിന്നോക്കം നമ്മുടെ വരുമാനത്തിൻ്റെ തോതനുസരിച്ച് വരുമാന സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് ബി പി എൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബിബി പി എൽ ആണോ എ പി എൽ ആണോ ദാരിദ്ര്യരേഖയുടെ താഴെയാണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് നമുക്ക് അവർ തരുന്ന സേവനം ചെയ്യാവുന്ന അതിനെ ആ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പിന്നെ വരുമാനത്തിൻ്റെ ഇത് തോതനുസരിച്ച് നോക്കിയിട്ടാണ് ആ കാർഡ് ഉപകാരപ്പെടുന്നതെന്നാണ് എനിക്കുള്ള അറിവ്